നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലും സാധാരണ കാണുന്ന രീതികളും എല്ലാം ഉൾക്കൊണ്ടു വേണം നമ്മൾ ഓരോ കഥാപാത്രങ്ങൾക്കും രൂപം കൊള്ളുന്നത് ഓരോ കലാരൂപങ്ങൾക്കും രൂപം കൊടുക്കുന്നത് നമ്മൾ പ്രകൃതിയിൽ കാണുന്ന കാണുന്ന വസ്തുക്കളുടെ ചലനങ്ങൾ ശബ്ദങ്ങൾ അതിനെയൊക്കെ ക്രോഡീകരിച്ചാണ് നമ്മൾ മിമിക്രി മോണോആക്ട് തുടങ്ങിയ കലാരൂപങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് ആ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതിന് ആ ഒറിജിലായിട്ടുള്ള കഥാ പാത്രങ്ങളുടെ ആ കഥ തന്തുക്കളുടെ ഇതും നമ്മുടെ കലാകാരൻ്റെ സംഭാവനകളും കൂട്ടിയിണക്കി അതിനെ ഒരു കലാരൂപമാക്കി നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ആ കലാ രൂപത്തിൽ നമ്മുടേതായ സംഭാവനയുണ്ട് പ്രകൃതിദത്തമായിട്ട് നമുക്ക് ലഭിച്ച കാര്യങ്ങളുണ്ട് എല്ലാ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അതൊരു നല്ല ഒരു കലാരൂപമായിട്ട് പോകുന്നു അതിന് അനുകരണം വളരെ ഇതായിട്ടുള്ളൊരു കലാരൂപമാണ് മോണോആക്ടെന്ന് പറയുന്നത് ഒരു വസ്തുവിനെ കാണുമ്പോൾ അതിൽ ഒരു കഥാപാത്രത്തെ കാണുമ്പോൾ അവരുടെ ചലനങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ആ ശബ്ദതരംഗങ്ങൾ ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കുന്നതെന്നും എല്ലാം മനസ്സിലാക്കി നമ്മൾ അതിനെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു അതൊരു നല്ലൊരു കലാരൂപമായിട്ട് മാറുന്നു